ഹാ ഹലോ അ അന്നപൂർണ്ണ കാറ്ററിങ്ങ് അല്ലേ ആ ആ സുഹൃത്തേ എനിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു അത് ബാപ്റ്റിസത്തിൻ്റെ ആയിരുന്നു

ഡേറ്റ് അടുത്ത വെള്ളിയാഴ്ച ആണ് സോറി അടുത്ത അടുത്ത ഞായറാഴ്ച ആണ് ഡേറ്റ് ഞായറാഴ്ച ഞായറാഴ്ച ഡേറ്റ് വരുന്നത് ഇരുപത്തി എട്ടാം തീയ്യതി ആ ഫുഡ് നമ്മൾ ഒരു പത്ത് മുന്നൂറ് രൂപ ആ റേഞ്ച് വരുന്ന ഒരു അതിൻ്റെ ഒന്ന് പറയാമോ ഫംഗ്ഷൻ പാറത്തോട്ടിലാണ് പാറത്തോട് ഇടുക്കി ജില്ലയിൽ പാറത്തോട് ആ വീട് അ ല്ല നമ്മൾ ഹോളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്

ഇപ്പോള് പാരീഷ് ഹാൾ ആണ് ആ പള്ളിയോട് ചേർന്നിട്ടുള്ള ആ അതെ അതെ അതെ ആ മുകളിലാണ് മുകളിലാണ് ആ അതെ അതെ ഏകദേശം ഒരു മുന്നൂറ് പേര് ആവറേജ് ആ ആ ഈവനിങ്ങ് ആണ് നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈവനിങ്ങ് ആണെങ്കിൽ ആ ഈവനിങ്ങാ ആണ് ആ ഓക്കെ ഓക്കെ ആ ഓക്കേ ആ ഓക്കെ

ചേന ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിരിക്കും അല്ലേ

ആ ഓക്കെ ഓക്കെ ഒരു കോമണ് ഒരു രീതിയിൽ നമുക്ക് ആവറേജ് എത്ര രൂപയാവും ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കേ ആ മുന്നൂറ് പേർക്ക് ഉള്ളതാണോ നിങ്ങൾ ഈ റേറ്റ് പറഞ്ഞത് കുറച്ചു കൂടി റേറ്റെക്കെ നമുക്ക് അഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടോ ആ ഓക്കെ

ഓക്കെ ഏതായാലും ഈയെച്ചൂടെ മെച്ചമായിട്ടുള്ള ബോഫെ ഏതായിരിക്കും

ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നാളെ എപ്പോഴത്തേക്ക് അവിടെ കാണും ഓക്കെ അല്ലേ എന്നാൽ നാളെ വന്നിട്ട് മീറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ